ഹലോ സാറേ മുനിസിപ്പൽ ഓഫീസല്ലേ നമ്മുക്കെ വൃക്ഷത്തൈകൾ നടുമ്പോൾ അതിൻ്റെ സംരംഭത്തിൽ നിന്ന് ഹരിത മാലിന്യങ്ങൾ ധാരാളമായി ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പോള് അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുമോ ഈ ഹരിതമാലിന്യങ്ങൾ കൂടുതലായാൽ വന്നാൽ ഇത് ഗ്രാമപ്രശം പ്രദേശം കൂടി ആയത് ആയതിനാൽ ജനങ്ങൾ ഇതിനെതിരെ പോയി കഴിഞ്ഞാൽ കേസും പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഇതിൻ്റെ ഹരിത ട്രിബൂണലിൽ കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഇതിനോടുള്ള കേസിൻ്റെ പുറകെ ഒക്കെ പോകാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുമാണ് പിന്നെ എന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള പിഴകളും നമുക്കത് താങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല നമ്മളൊരു യുവ സംരംഭകൻ എന്ന എന്ന രീതിയിൽ നമ്മളെ എന്തെങ്കിലും തരത്തിൽ പുതിയൊരു ഐഡിയ പുതിയ രീതിയിൽ പാക്കേജ് ആയിട്ടൊന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു